കോഴി സംബന്ധിച്ചു പറയുമ്പം നമ്മൾ ഒരു സാധാരണ കുടുംബത്തിലെ ആളുകളാകുമ്പോൾ കോഴി വളർത്തലിലൂടെ നമുക്ക് കുറച്ചു വരുമാനമാർഗ്ഗം പ്രത്യേകിച്ചു വീട്ടമ്മമാർക്ക് ഒരു വരുമാനമാർഗവും ഈ കോഴി വളർത്തൽ ഇപ്പം നമുക്ക് വീടിൻ്റെ പുറകിൽ ഒരു സൗകര്യങ്ങളൊക്കെ ചെയ്തു വച്ചു അത് കൂടാരം പോലയൊക്കെ അടച്ചു കെട്ടി കുറച്ചു കോഴി കുഞ്ഞുങ്ങളെ ഇൻകുബേറ്ററിലെ മുട്ട വച്ചു വിരിയിച്ചു ഇറക്കുന്ന സമ്പ്രദായമുണ്ട് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇങ്ങനെയുള്ള ഫ കോഴി വളർത്തൽ ഫാമിൽ നിന്ന് കോഴിക്കുഞ്ഞുങ്ങളെ വിലയ്ക്ക് മേടിച്ചു നമ്മൾ വീട്ടിൽ കൊണ്ടൂ വന്നു വളർത്തി അതിൽ കുറേ ആദ്യം നഷ്ടപ്പെടും പിന്നീട് അത് ലഭ്യമാകുവള്ളു അവർ ആ കുറച്ചു നാൾ ജീവിച്ചു ആ പ്രകൃതിയിൽ നിന്ന് വേറൊരു സ്ഥലത്തോട്ട് വരുമ്പോൾ അവരുടെ ആ കാലാവസ്ഥ ചേഞ്ച് അവരെ ബാധിക്കും അപ്പം ഇപ്പോൾ ഒരു പ്രതീക്ഷയോടെ ആയിരിക്കും ഒരു വീട്ടമ്മ ഇതെല്ലാം മേടിച്ചു വളർത്തുന്നത് അപ്പം ഒരു ആറ് മാസത്തെ പരിപാലനത്തിന് ശേഷം മുട്ടയിടലും കാര്യങ്ങളും തുടങ്ങുമ്പോൾ നമ്മൾ ഓരോ കടകളിൽ കൊടുക്കുന്നു വീടുകളിൽ വന്നു മേടിക്കുന്നു വീട്ടുകാർ വന്നു മേടിക്കുന്നു അപ്പം നമ്മൾക്ക് ഒരു ചെറിയ ഒരു വരുമാന മാർഗ്ഗമാവും അല്ലേ അപ്പം ആ വരുമാന മാർഗ്ഗം ഒരു കുറച്ചു നാൾ നിന്നിട്ട് പെട്ടെന്നങ്ങ് നിൽക്കും അതായത് രോഗിക്ക് അല്ല കോഴിക്ക് കോഴിവസന്ത എന്ന പല രോഗങ്ങൾ കടന്നു വരികയും മുട്ട ഉൽപാദനശേഷി കുറയുകയും അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ചിലപ്പോൾ ലോണെടുത്ത് വരെ ഇങ്ങനെയുള്ള കോഴി വളർത്തൽ നടത്തുന്നുണ്ട് അപ്പം അവരുടെ ആകെയുള്ള സമ്പാദ്യത്തിൻ്റെ ആ വ്യവസ്ഥയ തന്നെ താറുമാറാക്കുന്ന രീതിയിലാണ് ഓരോ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത് അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ അതൊരു വലിയ ഒരു പ്രശ്നമാണ് നമ്മൾ നേരിടുന്നത് കാരണം ഇതിലൂടെ വരുമാനം ഉണ്ടാക്കാം എന്നു വിചാരിച്ചു പല ആളുകളും ലോണും കാര്യങ്ങളും കടവുമൊക്കെ മേടിച്ചു വളർത്തുമ്പോൾ ഇത് പെട്ടെന്ന് തന്നെ അതിന് രോഗങ്ങളൊക്കെ വന്നു കുറെയൊക്കെ ചത്തു പോകുകയും മുട്ട ഉൽപാദനശേഷി കുറയുകയും ഒക്കെ ചെയ്യുമ്പോൾ സാധാരണ ഒരു വീട്ടമ്മയ്ക്ക് താങ്ങാവുന്നതിലും അപ്പുറമാണ് ഈ ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞാൽ ഈ കോഴി നല്ല ആടായാലും പശുവായാലും എല്ലാം അങ്ങനെയാണ് നമ്മൾ ഇപ്പം അവരെ വളർത്തുന്ന നമ്മുടെ ഒരു ആദായ മാർഗ്ഗത്തിനായിരിക്കുമല്ലോ ഇപ്പം വലിയ വലിയ സമ്പന്നർ ഏതായാലും ഈ ഒരു ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി പുറകെ പോകത്തില്ല അപ്പം ഒരു പിന്നെ മിഡിലായിട്ട് ജീവിക്കുന്ന ഫാമിലിയാണ് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളും കൃഷിയും പിന്നെ ഈ കന്നുകാലി വളർത്തൽ കോഴി വളർത്തൽ അങ്ങനെയുള്ളതിലൊക്കെ ഏർപ്പെടുകയും ചെയ്യുന്നത് അപ്പം അവർക്ക് അവരുടേതായ ആ വരുമാനം നിക്കുമ്പോൾ എന്താണെങ്കിലും അതൊരു കുറച്ചു നാളത്തേക്ക് പിടിച്ചു നിൽക്കാൻ വളരെയേറെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യാമാണ്